ഞങ്ങൾ ശേഖരിച്ച സ്റ്റാമ്പുകൾ പല രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ ശേഖരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്നു പറയുമ്പോൾ നമുക്ക് കത്തുകളുടെയൊക്കെ ഉപയോഗം നമ്മൾ കുറച്ചു കാരണം ഫോണിലൂടെയാണ് ആശയവിനിമയങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് അതുകൊണ്ടുതന്നെ നമുക്കിപ്പം ലെറ്റർ സംവിധാനങ്ങൾ കുറഞ്ഞു കാരണം അത് അതിപ്പം ബാങ്കുകൾ അങ്ങനെയുള്ള ഓരോ ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്കാണ് നമ്മളിപ്പം കൂടുതലും സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ടുതന്നെ നമുക്കിപ്പോൾ സ്റ്റാമ്പിൻ്റെ ലഭ്യത ഒന്നും നമുക്ക് ഇല്ല കാരണം അതൊക്കെ അത് അത് അതുകൊണ്ടുതന്നെ നമുക്ക് ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു മൂല്യം എന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നുള്ള സ്റ്റാമ്പുകളും അന്നത്തെ ഉപയോഗങ്ങളെക്കുറിച്ചൊക്കെ ഇന്നുള്ള കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കാരണം ഈ സ്റ്റാമ്പുകളൊക്കെ പഴയ സ്റ്റാമ്പുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വെച്ചു കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ കുട്ടികൾക്ക് അറിവു പകർന്ന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അന്നത്തെ സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ പറയാനായിട്ടും കാണിച്ചു കൊടുക്കാനുമൊക്കെ നമുക്ക് സാധിക്കും അതുപോലെ നാണയങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇതുപോലെതന്നെ ഇന്ന് പല നാണയങ്ങളും നമുക്ക് പണ്ടുണ്ടായിരുന്ന ഓരോ രൂപ അന്ന് അതൊക്കെ നമുക്ക് നമ്മുടെ പൂർവ്വികരിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവുകളാണ് കാരണം അന്നത്തെ സംവിധാനങ്ങൾ അത് ഓരോ കാലഘട്ടത്തിലും ഈ നാണയങ്ങളുടെയൊക്കെ ഉപയോഗങ്ങളൊക്കെ മാറി മാറി വരുന്നു ഇപ്പോൾ കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഇരുപത്തഞ്ച് പൈസയും അമ്പത് പൈസയുമൊക്കെ പത്തു പൈസയും ഇരുപത് പൈസയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ ഇല്ലാതായിരിക്കുകയാണ് ഇതൊന്നും നമുക്ക് ഇന്നത്തെ സാമ്പത്തിക ഇടപാടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതൊക്കെ നമ്മൾ ശേഖരിച്ചു വെക്കുമ്പോഴാണ് പുതിയ തലമുറയ്ക്ക് അതൊക്കെ ഒരു ഒരു കാഴ്ച്ച വൈവിധ്യത്തിന് കാരണമാകുന്നു കാരണം നമുക്കത് അവരത് ആരെയോ ഒക്കെ ആകാംക്ഷയോടെ അത് കാണുന്നു കാരണം അന്നത്തെ ഇന്നില്ലാത്ത പല കാര്യങ്ങളും പണ്ട് പണ്ടുണ്ടായിരുന്നതും നാം നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളുമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊരു പുതിയ ഒരു അറിവ് ലഭിക്കാനായിട്ടത് കാരണമാകുന്നു കല്ലുകൾ എന്നു വെച്ചു കഴിയുമ്പോൾ എന്നാ അതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് അറിയത്തില്ല എങ്കിൽപ്പോലും പല പല അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ കല്ലുകളുണ്ട് കല്ലുകളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാണെന്ന് നമുക്ക് തോന്നുന്നു അതൊക്കെ പഴയ ആ ഒരു സംവിധാനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചുവെക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് അത് കൂടുതൽ അറിവ് പകർന്നു കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമെന്നതിൽ നിശംശയമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന മൂല്യങ്ങൾ അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനഫിറ്റ് എന്നു തോന്നുന്നു അതുകൊണ്ട് പഴയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള നാണയങ്ങൾ സ്റ്റാമ്പുകൾ കല്ലുകൾ എന്നിവയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് പുതുതലമുറയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുവാനും അവർക്ക് ഒരു ഒരാകാംക്ഷ നിർഫലമായ ഒരു കാഴ്ച്ച നൽകാനും സാധിക്കും